വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തൊഴിൽ കൃഷിയാണ് കപ്പക്കൃഷി ചേനക്കൃഷി നെൽക്കൃഷി ചേമ്പ് ചേന വാഴക്കൃഷി എന്നിവയെല്ലാം കൂട്ടായ്മയോടുകൂടി ചെയ്യുന്ന ഒരു തൊഴിലാണ് കൃഷിയെന്നു പറയുന്നത് പച്ചക്കറിക്കൃഷി ഇതൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നതാണ്